ഇപ്പം മത്സ്യബന്ധനം എന്ന് പറഞ്ഞാല് രസകരമായി തോന്നുന്നത് എല്ലാവരും ഒരുമിച്ചു പോയി ഉത്സാഹത്തോടെ പോയി അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പം നമുക്കിപ്പോൾ ചെറിയ പണി ആണെങ്കില് പോലും നമ്മള് എല്ലാവരും ചേർന്ന് ഒത്തു പിടിച്ച് എന്താ പറയുക ചിലര് പാട്ടും അതുപോലെതന്നെ എല്ലാം കൂടെ ചേരുമ്പോൾ അതിന് ഭക്ഷണം കഴിക്കുന്നത് ആയിക്കോട്ടെ എല്ലാം ഒരുമിച്ചാണ് അങ്ങനെ വരുമ്പോൾ മാത്രം നമുക്കൊരു രസകരമായി തോന്നുകയുള്ളു അപ്പം ഇനിയിപ്പം എന്റെ ഒരു അടുത്ത തലമുറയ്ക്ക് ഞാന് അത് പറഞ്ഞു കൊടുക്കുകാന്നു വെച്ചിരുന്നാല് ഇപ്പം അവരവരെ ഇഷ്ടമാണ് ഞാൻ ഇതിലും നല്ലൊരു ജോലിക്ക് പോവാനാണ് ഞാൻ അവരോട് പറയുക പക്ഷെ എന്ന് വെച്ചിരുന്നാല് ഇതിനെ ഇത് നല്ലൊരു പണി അല്ലെന്നാണ് അല്ലെന്ന് ഞാൻ പറയില്ല കാരണം നമ്മക്ക് ഇതിൽ വരുമാനം കിട്ടുന്നകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോകുന്നത് അപ്പം എന്താ പറയുക ഒരു സാധാരണ ഒരു മറ്റേ ഗവൺമെൻറ് ജോലിക്കാരെക്കാളും കൂടുതൽ പൈസ നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽപോലും ഞാന് എന്താ പറയുക എൻ്റെയൊരു മകളോട് അല്ലെങ്കില് മകനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ജോലി തന്നെ ഏറ്റെടുക്കണം എന്നല്ല പക്ഷേ എന്താ പറയുക നിങ്ങള് ഒരിക്കലും വന്ന വഴി മറന്നുപോകല്ലെന്നേ ഞാൻ പറയത്തൊള്ളൂ കാരണം ഇത് നമ്മളുടെ തൊഴിലാണ് നമുക്ക് ഇതെന്നാണ് ഭക്ഷണം കിട്ടുന്നത് അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്